അപ്പോള് ഗയ്സ് നമ്മളൊരു നീണ്ട ബൈക്കിങ് യാത്രയ്ക്കു പോകുകയാണെങ്കില് നമ്മള് എന്തൊക്കെ സാധനങ്ങള് നമ്മള് കയ്യിൽ കരുതണം ഉദാഹരണത്തിന് ഈ കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് നമ്മള് ജമ്മു കാശ്മീരിലേക്കു പോകുകയാണ് ശ്രീനഗറിലേക്കു പോവുകയാണെന്നുണ്ടെങ്കില് കുറേ ദിവസങ്ങള് നമ്മള് വാഹനത്തിലൂടെ സഞ്ചരിക്കേണ്ടിവരും ബൈക്കിലൂടെ സഞ്ചരിക്കേണ്ടിവരും ആ സമയത്തു നിങ്ങള് എന്തെല്ലാം ആയുധങ്ങളാണ് എന്തെല്ലാം സാമഗ്രികളാണ് നിങ്ങള് കയ്യിൽ കരുതേണ്ടതെന്നു സ്വാഭാവികമായും നാമെല്ലാവരും ചിന്തിക്കേണ്ടതാണ് നമ്മളെപ്പോഴാണു പോവുകയെന്നു പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ടുതന്നെ നമ്മള് ആദ്യമായിട്ടു കണക്കുകൂട്ടേണ്ടത് ഈ ബൈക്കിനാവശ്യമായിട്ടുള്ള സ്പെയേഴ്സുകളാണ് ബൈക്ക് ചില സമയത്ത് ടയർ പൊട്ടാനും അതുപോലെ തന്നെ ചില സമയത്ത് അതിൻ്റെ സ്ക്രൂ ഇളകാനുമൊക്കെ സാധ്യതയുണ്ട് കാരണം അത്രയും നീണ്ട യാത്രയാണു നമ്മള് ചെയ്യാൻ പോകുന്നത് അപ്പോള് സ്വാഭാവികമായിട്ടും നമ്മള് അതിനനുസരിച്ചിട്ടുള്ള ബൈക്കിനെ നന്നാക്കാൻ വേണ്ടിയുള്ള സ്പെയർ സാധനങ്ങൾ നമ്മള് സ്വാഭാവികമായി കരുതണം അത് അത് അർത്ഥമാക്കുന്നതു നിങ്ങള് നാട്ടിലുള്ള എല്ലാ ടയറും അല്ലെങ്കില് എല്ലതും വണ്ടിയില് കയറ്റണമെന്നല്ല നമുക്ക് അത്യാവശ്യമായി നമുക്കു തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് നമ്മൾ അത് എടുത്തുവയ്ക്കണം ഇനി ഭക്ഷണ സാധനങ്ങള് സ്വഭാവികമായും നമ്മള് നോർത്തിലേക്കു പോകുകയാണെന്നുണ്ടെങ്കിൽ വടക്കൻ സംസ്ഥാനങ്ങളിലേക്കു പോകുന്ന സമയത്ത് അവിടുത്തെ ഭക്ഷണങ്ങൾ നമുക്കു ചിലപ്പോള് ദഹിക്കണമെന്നില്ല അതുകൊണ്ടുതന്നെ അത്യാവശ്യമായി നമുക്കു കഴിഞ്ഞുകൂടാൻ പറ്റുന്ന രീതിയിൽ ബ്രെഡ് അല്ലെങ്കിൽ അങ്ങനത്തെ വസ്തുക്കളൊക്കെ നമുക്കു കൊണ്ടുപോകാം ഇനി ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങൾ പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊണ്ടുപോവാാൻ കഴിയുകയാണെന്നുണ്ടെങ്കില് അതു വളരെ സുഖമായിരിക്കും അതു നമുക്കു ചെലവു കുറയ്ക്കാനുള്ളൊരു കാരണവുമായിട്ടു നമുക്കു മനസ്സിലാക്കാം അതുപോലെ തന്നെ അങ്ങനത്തെ ഭക്ഷണങ്ങളിലേക്കു ഭക്ഷണം കഴിക്കാൻ ഉള്ള വസ്തു പാത്രമായാലും വെള്ളമായാലും അങ്ങനെ കുറച്ചു നമ്മൾ പാഥേയമായി നമ്മൾ ആദ്യമേ എടുത്തുവയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വണ്ടിയിൽ നാം ഹെൽമറ്റ് ഉറപ്പു വരുത്തണം ഹെൽമറ്റില്ലാതെ നമ്മള് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസ് ഫൈനടിക്കും അതിൻ്റെ പുറമേ നമ്മുടെ സുരക്ഷയ്ക്കു വളരെയധികം എടങ്ങേറാക്കുന്ന ഒരു സംഭവമാണ് ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുക എന്നുള്ളത് അപ്പോള് നീണ്ട യാത്രകളിലേക്കു പോകുമ്പോള് നമ്മള് ഒരു ലോങ് ടൈമായി നമ്മള് ചിന്തിക്കണം അതുപോലെ തന്നെ അത്യാവശ്യമായ മരുന്നുകൾ നമ്മള് കരുതണം അതും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഇതാണ് പാരസിറ്റമോളൊക്കെ നമുക്ക് ഉറപ്പായിട്ട് നമ്മള് ഉറപ്പു വരുത്തുക